ഒരു ബൈക്ക് യാത്രയിൽ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകാൻ ശ്രദ്ധിക്കുന്നതാണ് ഹെൽമെറ്റുകൾ അതുപോലെ തന്നെ

കാരണം അത് എന്നെ പലപ്പോഴും സഹായിച്ചിട്ടുമുണ്ട് കാരണം ഞാൻ ബൈക്കിൽ ദൂര യാത്ര ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ആളു ആൾപ്പാർപ്പുകൾ ഇല്ലാത്ത കാടുകളിൽ ഞാൻ ഒറ്റപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കെന്തെങ്കിലും ഒക്കെ അപകടം പറ്റിയാൽ ഇത് എനിക്ക് കൂടുതൽ സഹായം നൽകുന്നു അതുകൊണ്ട് തന്നെ ഒരു ബൈക്ക് യാത്രയിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട് യാത്രക്കിടയിൽ ഉണ്ടാകുന്ന വെഹിക്കിളിലെ മെക്കാനിക്കൽ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം മെക്കാനിക്കൊക്കെ അറിയാം കാരണം ഞാനത് ഒരു വർക്ക് ഷോപ്പിൽ കുറച്ച് കാലം നിന്ന് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാൻ ഊട്ടിയിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരു യാത്ര പോകാൻ വിചാരിച്ചു വഴിയുടെ ഇടയിൽ വെച്ച് എൻ്റെ ബൈക്ക് ചെറുതായിട്ടൊന്നു തട്ടി അങ്ങനെ ബൈക്ക് വീണപ്പോൾ ബൈക്ക് വീണത് സ്റ്റാർട്ടാകാൻ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നു അവിടെയാണെങ്കിൽ ഒരു കാടായിരുന്നു തൊട്ടപ്പുറത്തോ അപ്പുറത്തോ എവിടെയും ആൾപ്പാർപ്പുകളുമില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം വല്ലാതെ അവിടെ കഷ്ടപ്പെട്ടു പിറ്റേ ദിവസം ഒരു മൂന്ന് നാല് സുഹൃത്തുക്കൾ വന്നിട്ടാണ് എന്നെ ബൈക്ക് ശരിയാക്കി തന്നത് അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഞാൻ എന്ത് റിസ്ക് എടുത്തും മെക്കാനിക്സ് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ബൈക്കിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ സഹായം തേടേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ലല്ലോ അങ്ങനെ ഞാൻ കീഴികാവിൽ ഒരു വർക്ക് ഷോപ്പിൽ നിന്നാണ് ബൈക്ക് മെക്കാനിക്സുകളൊക്കെ ഏകദേശം പഠിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ബൈക്ക് അത്യാവശ്യം റിപ്പെയർ ചെയ്യാനും കേട് ശരിയാക്കാനും അറിയാം എൻ്റെ ബൈക്കിന് ഒരു തകരാർ സംഭവിച്ചു വീണ്ടും അത് മൂന്നാറിൽ നിന്ന് ഇടുക്കിയിലേക്കൊരു യാത്ര പോവുകയായിരുന്നു അന്നായിരുന്നു എൻ്റെ ബൈക്ക് പെട്ടെന്ന് സ്റ്റാർട്ടാകുന്നില്ല പക്ഷെ അത് ഞാൻ മെക്കാനിക് പഠിച്ചതിന് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ ബൈക്കിൻ്റെ എഞ്ചിനും ബൈക്കിൻ്റെ ചെയിനിനും എന്തോ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് ശരിയാക്കിയെടുത്തു എന്നിട്ട് എൻ്റെ ബൈക്ക് സ്റ്റാർട്ടായി അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോയി ഇത് വളരെ ഉപകാരപ്രദമുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരു വാഹനത്തിൽ സഞ്ചാരിക്കുമ്പോൾ ആ വാഹനത്തെ സംബന്ധിച്ചുള്ള അത്യാവശ്യം ചില മെക്കാനിക്കുകൾ ഒക്കെ നമുക്ക് അറിഞ്ഞു വയ്ക്കുക എന്നുള്ളത് വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ മെക്കാനിക്കുകൾ ഒക്കെ അറിഞ്ഞു വയ്ക്കുന്നത് മൂലം നമുക്ക് നമ്മുടെ തന്നെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമുക്ക് തന്നെ ആ ബൈക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ തകരാർ സംഭവിച്ചത് എൻ്റെ സ്പലൻഡർ ബൈക്ക് ഉപയോഗിക്കുമ്പോഴാണ് അത്യാവശ്യം പഴയ കമ്പനി ആയത് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ടായിരുന്നു പക്ഷെ എൻ്റെ പുതിയ ബൈക്കായ ഡ്യൂക്ക് പോലുള്ള ബൈക്കുകൾ അല്ലെങ്കിൽ എൻ്റെ പുതിയ ബൈക്കായ ഹിമാലയം ഒക്കെ അതിലൊന്നും വല്ലാതെ കേടുപാടുകളോ സംഭവിക്കുന്നില്ല ഇനി സംഭവിച്ചാലും അതിന് ഒരുപാട് പൈസ മുടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ അത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത്